ഞാൻ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഒരു ഫംഗ്ഷനുവേണ്ടി ഇരുപത് പേർക്ക് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് അത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം കാരണം ആ ഫംഗ്ഷൻ ക്യാൻസൽ ആയിപ്പോയി അപ്പോൾ ഞാൻ എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം അവർ ചോദിച്ചപ്പോൾ അവർ റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അവർ റീഫണ്ട് ചെയ്തില്ല അത് എന്തുകൊണ്ടാണ് റീഫണ്ട് ചെയ്തു തരാത്തതെന്നുള്ള കാരണം ഞങ്ങൾക്ക് പറഞ്ഞ് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല ഒരു റീപ്ലേയും ഒരു റീപ്ലേയും വരണില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്